ഞാനൊരു സൈക്കിൾ എടുക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ ഷോ നമുക്ക് ജസ്റ്റ് നോർമൽ യൂസും പിന്നെ സ്പോർട്സ് ആയിട്ടുള്ളത് ആൺകുട്ടികൾക്കുള്ളത് ആ കുട്ടിക്കൊരു പത്തുപന്ത്രണ്ടു വയസ്സായി ബഡ്ജറ്റ് നമുക്കൊരു പത്തു പത്രണ്ടായിരത്തിൻ്റെ ഉള്ളില് വരുന്നത് കുട്ടികൾക്ക് ഇപ്പോയെല്ലാം മോഡല് ഗിയർ സൈക്കിളല്ലേ യൂസ് ചെയ്യുന്നത് ആ ഗിയർ സൈക്കിൾ തന്നെ മതി

ആ ഇതിലേതാ കുട്ടിക്കൾക്ക് നല്ലത് ആ ന്യൂ മോഡലൊക്കെയാണോ ബ്രേയ്ക് ലൈറ്റ് അങ്ങനെ ടൈപ്പാണോ ബ്രേയ്ക് ലൈറ്റ് അങ്ങനത്തെ ടൈപ്പാണോ അതോ ഹെഡ്ലൈറ്റ് ഹെർക്കുലീസിൻ്റെയോ

അത് വേണ്ടാ അത് വേണ്ടാ ട്യൂബ് ലെസ്സാണല്ലേ ഇതിൻ്റെ മെയിൻറ്റനൻസൊക്കെ എങ്ങനെയാ വരുന്നേ പാർട്സ് വാങ്ങിച്ച് തരണമല്ലേ ഹീറോ ആന്ന് ഒരു ബ്ലൂ ഗ്രേ മിക്സ്